ആ ഹലോ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാൻവേണ്ടി വിളിക്കുവായിരുന്നു എനിക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനാണെ എൻ്റെ അച്ഛനും അമ്മയും എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പം അവർക്ക് പ്രായമാണ് അവർക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയുണ്ട് അപ്പം ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നെച്ചറായിട്ടുള്ളൊരു ഡ്രൈവറെ വേണം അയക്കാൻ വേണ്ടീട്ട് അപ്പം എങ്ങനാണ് നമ്മുടെ സർവീസൊക്കെ എങ്ങിനാണെന്നൊന്ന് പറയാമോ അതായത് നമുക്ക് രാവിലെ ചെല്ലണം രാവിലെ അവിടുന്നു ചെന്നിട്ട് മൂവാറ്റുപുഴ ആ റോഡു വഴി അതായത് മൂവാറ്റുപുഴ ചെങ്ങന്നൂർ റോഡ് വഴി വേണം വരാൻ കാരണം എൻ്റെ മോനും അവിടുണ്ട് അവനെക്കൂടി അവിടുന്ന് പിക്ക് ചെയ്യണം അങ്ങനെ അച്ഛനും അമ്മയും മോനും ആയിട്ടു വേണം വരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആലപ്പുഴ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ മോനെ അവിടുന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് നമുക്ക് തിരുവനന്തപുരം കാര്യവട്ടത്താണ് വരേണ്ടത് അവിടെ വരെ വരുന്നതിന് എത്ര റൈറ്റാകും നമുക്ക് ട്രാവലിങ് ഇതും അതുപോലെ അവർക്ക് പ്രായമായതുകൊണ്ടു ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് വണ്ടിയിലൊക്കെ കയറാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു അവർക്കൊരു സപ്പോർട്ട് വേണം ഒരു ഹെൽപ്പോട് കൂടിവേണം അവരെയൊന്നു കയറ്റിയിരുത്താൻ വണ്ടിയിൽ കയറ്റാൻ അപ്പം ആ ഒരു ഹെൽപ്പിനും കൂടി പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമുക്കതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കാം അപ്പം അങ്ങനെ അത് ഏത് സമയത്തേക്ക് കിട്ടും